ആ ചേട്ടാ ഞാൻ നേരത്തെ വിളിച്ചവൻ തന്നെ മറ്റേ ഫുഡൊക്കെ ക്യാൻസൽ ചെയ്തില്ലേ അത് ഞാനിപ്പോൾ വിളിച്ചത് എന്താ വെച്ചാല് നമുക്കതിൻ്റെ പൈസ ഇതുവരെ കേറിയില്ല എപ്പോഴേക്കാ നിങ്ങളിത് തരിക പൈസ ഞാനത് മേടിക്കാൻ ഇനി കടയിൽ വരണോ നിങ്ങക്ക് ഗൂഗിൾ പേയിൽ അയച്ചു തരാൻ പറ്റില്ലേ അയച്ചു തന്നാൽ മതി

ഞാപ്പഴ് ഓർഡർ ചെയ്ത സാധനങ്ങള്ന്ന് പറഞ്ഞാ ഒരു പതിനഞ്ച് പൊറോട്ടയും പത്ത് ചപ്പാത്തിയും അഞ്ചു ചിക്കൻ കറിയും ഒരു ഫുള്ള് അൽഫാമും ഒരു ഫുള്ള് ചില്ലി ഫ്രൈയും ഒരു സെവനപ്പും രണ്ട് ലിറ്ററിന്റെ

ശരി ഈ പൈസ എത്രയും വേഗം അയച്ചു പിടി ഗൂഗിൾ പേയിൽ അയച്ചാൽ മതി അയച്ചിട്ടൊന്ന് വിളിക്കണേ കൺഫോം ചെയ്യാൻ ആ ശരി ശരി തിരക്കാണല്ലേ ആ ശരി വേഗം അയച്ച് വിട്ടാൽ മതി തിരക്ക് കഴിഞ്ഞിട്ട്